ഇപ്പോൾ ഇന്ത്യയിലെ ഗതാഗത സംവിധാനം എന്നു പറഞ്ഞു കഴിഞ്ഞാല് പല രീതിയിലുള്ള ഗതാഗതം സംവിധാനം നമുക്ക് ഇന്ത്യയിലിപ്പോൾ ഏകദേശം എല്ലാ സ്ഥലങ്ങളില് ലഭ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാല് കൂടുതലായിട്ടും ആള്ക്കാർ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റോഡ് മാര്ഗ്ഗമുള്ള ഗതാഗതമാണ് അതാണെങ്കില് ഇപ്പം നല്ല രീതിയുലുള്ള ഹൈ വേയും കാര്യങ്ങളൊക്കെ ഇപ്പം വന്നിട്ടുണ്ട് എന് എച്ച് ആണെങ്കിലും അല്ലാണ്ട് സാധാരണ മലയോര ഹൈ വേയും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയില് വന്നിട്ടുണ്ട് ഇപ്പോൾ ഓരോ ചെറിയ റോഡുകള് വരെ നല്ല രീതിയില് റോഡും കാര്യങ്ങളൊക്കെ ആയിട്ടു വരുന്നുണ്ട് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വികസനം മുന്നോട്ട് കൊണ്ടു വരുന്നുണ്ടെന്നു വേണമെങ്കിൽ പറയാം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും നല്ല അടിപൊളി ആയിട്ടുള്ള റോഡുകളും കാര്യങ്ങളുമാണ് ഇപ്പം തന്നെ നമ്മളുടെ മൈസൂർ ബേംഗളൂർ ഹൈ വേ അത് നാലുവരി പാത അതായത് ആറുവരി പാത അപ്പം നല്ല അടിപൊളി ആയിട്ടുള്ള റോഡാണ് നമുക്ക് അത് മിനിമം സ്പീഡ് നൂറ്റി ഇരുപതോ മറ്റോ അങ്ങാണ്ടാണ് പക്ഷെ നല്ലൊരു യാത്രക്ക് പോകാന് പറ്റിയ ഒരു സ്ഥലം കൂടിയാണ് നമുക്ക് അപ്പോൾ കൂടുതലായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നത് റോഡ് മാര്ഗ്ഗമാണ് പിന്നെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ട്രെയിന് മാര്ഗ്ഗം അതായത് റെയില് വെയിൽ നമുക്ക് പോകുന്നതാണ് അപ്പം അതും നല്ലൊരു മാര്ഗ്ഗം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണെങ്കിൽ നമുക്ക് കറക്റ്റ് ടൈമില് കുറച്ചു മുൻപേ വേണമെങ്കില് എത്തിച്ചേരാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാല് ബ്ലോക്ക് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല അത് കാരണം വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് നമുക്ക് പ്ലെയിൻ അതായത് ട്രെയിന് വഴി വേണമെങ്കില് പിന്നെ ഉള്ളത് പ്ലൈന് ആണ് പ്ലൈനിലും നമുക്ക് ഇതേപോലെ തന്നെ ബ്ലോക്കും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്താൽ അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ട് പിന്നെ ജലം ജലത്തിലെ കൂടി നമുക്ക് വേണമെങ്കില് പോകാം അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെയുണ്ട് ഇതൊക്കെ നല്ല രീതിയിലാണ് മെച്ചപ്പെട്ട് വരുന്നത്